ഇപ്പം കൂടുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിലും അതുപോലെ നമ്മുടെ സ്കൂളുകളിലും കടന്ന് വരണം അത് നല്ലൊരു കാര്യമാണ് കാരണം നമ്മുടെ ഇപ്പത്തെ തലമുറകൾക്ക് ഇതിന് എന്താ കാണിക്കുന്നതെന്നോ അത് സമയം അവർക്കെന്താണ് ഒരു പെട്ടെന്ന് ഒരു കാര്യം പോലും ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയില്ല അപ്പം നമ്മൾ സ്കൂളുകളിൽ തന്നെ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുവാനും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനാവശ്യമായത് നമ്മൾ സ്കൂളുകളിൽനിന്നും അതുപോലെത്തന്നെ കോളേജുകളിലൊക്ക ഇങ്ങനെ തൊഴിലധിഷ്ഠിധ കോഴ്സുകൾ ഉണ്ടാകണം അതാണ് നമ്മുടെ അപ്പം അതുപോലെത്തന്നെ പല രീതിയിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ആശാരിപ്പണി ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പം ഡസ്ക്കിൻ്റെ ഒരു ആണി ഊരിപ്പോയി നമ്മളത് അടിച്ച് വയ്ക്കാൻ പോലും അറിയത്തില്ലെന്ന് പറയുമ്പോൾ നമുക്കതൊരു അപ്പം നമുക്ക് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഭിത്തിയിലൊരു ഒരു ഫ്രെയിം തൂക്കണം അപ്പം നമ്മൾ അതിന് ആവശ്യം ഒരു ആണി അടിക്കണം നമ്മൾ ആണിയടിക്കാൻ നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുവാണോ അതേസമയം നമ്മൾ ഡ്രില്ലിങ് മെഷീന് കൊണ്ടുവന്നാൽ എന്താ ആണിക്ക് ആശാരി പണിക്കാർ ഡ്രില്ലിങ് മെഷീനും കൊണ്ട് വന്ന് ഒരു ആണി അടിക്കുന്നത് അത് നമ്മൾ സ്വന്തം ഒരു ചുറ്റിക എടുത്ത് അല്ലെങ്കിൽ ആ ആണി അടിക്കുന്ന ആണെങ്കിൽ അപ്പം നമ്മൾ അതുപോലെയുള്ള കുറച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ അപ്പം അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളറിഞ്ഞിരിക്കുക അങ്ങനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കോളേജുകളിൽ സ്കൂളുകളിൽ എന്നപോലെ പഠിപ്പിക്കണം അതുപോലെത്തന്നെ പമ്പിങ് പമ്പിങ്ങിനെക്കുറിച്ച് പറയുവാണെ നമുക്കിപ്പം മോട്ടർ വരുന്നില്ല അതിപ്പം ഓസിനുണ്ടായിട്ട് ഇപ്പോൾ ഓസേൽ വണ്ടി കയറി ഓസ് പൊട്ടിപ്പോയി ആ ഓസൊന്ന് ശരിയാക്കണം അതിന് നമ്മൾ അടുത്തുള്ള പ്ലംമ്പറെ വിളിക്കേണ്ട കാര്യം ഉണ്ടോ അതിനൊക്കെ നമ്മൾ സ്വയമാണെങ്കിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക അപ്പം അതൊക്കെ നമ്മളെ പുതിയ തലമുറകളെ നമ്മൾ പഠിപ്പിക്കാൻ നോക്കുക അതുപോലെത്തന്നെ നമുക്ക് തുന്നൽ അത്യാവശ്യം നമ്മുടെ ഒരു ഒരു ഡ്രസ്സിൻ്റെ ഒരു ഇത്തിരി കീറി പോയി ഇപ്പം നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ഇരുന്നതാണ് സ്ഥലത്ത് കീറിപ്പോകുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മുടെ ഡ്രസ് നമുക്ക് തന്നെ കൈത്തുന്നൽ തയ്ക്കാം കൈ തുന്നൽ തുന്നുവാനും അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് കാരണം നമുക്ക് അത്യാവശ്യം എപ്പോഴാ വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കോളേജീന്നും സ്കൂളുകളിൽനിന്നൊക്കെ പഠിപ്പിക്കണം അതുപോലത്തന്നെ വീടുകളിൽനിന്നും പഠിപ്പിക്കണം കോളേജും സ്കൂളിനാ തന്നെ പറഞ്ഞിട്ടല്ല വീടുകളിൽനിന്ന് പഠിപ്പിക്കണം കാരണം വീടുകളിൽനിന്ന് പഠിച്ചാൽ മാത്രമേ അത് ഉപകാരപ്പെടുത്തുള്ളൂ നമുക്കറിയാം അപ്പം നമ്മളുടെ കുട്ടികളെ നമ്മൾ പുതിയ തലമുറ വളർത്തി കൊണ്ട് വരുമ്പോൾ നമ്മൾ അതുപോലെയുള്ള പണികളൊക്കെ പഠിപ്പിക്കണം പിന്നെ കോഴി വളർത്താൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ കോഴി അത് ഒരു അഞ്ച് കോഴിനെയൊക്കെ വളർത്തുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് കാരണം അവർക്കൊരു പോക്കറ്റ് മണിയായിട്ട് നമുക്കത് കൂട്ടാവുന്നതാണ് കാരണം ഒരു കോഴിയിനെ വളർത്തി കഴിയുമ്പോൾ അതിന് ഒരു ദിവസം ഒരു മുട്ട വീതം കിട്ടും അഞ്ച് കോഴിയാവുമ്പോൾ അഞ്ച് മുട്ട വെച്ച് ഡെയിലി കിട്ടുമ്പോൾ അതിൽനിന്ന് അവർക്കൊരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ കഴിയും അത് പത്ത് ദിവസവും പതിനഞ്ച് ദിവസവും ആകുമ്പോൾ അവർക്കൊരു അത്യാവശ്യം അവരുടെ കാര്യങ്ങൾ നോക്കാനും അവർക്ക് പോക്കറ്റ് മണിയായിട്ട് അവർക്കത് ഉപകാരപ്പെടും അപ്പം നമ്മളങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ മൃഗസംരക്ഷണം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മൃഗസംരക്ഷണം അത് പറ്റത്തൊന്നും ഇല്ല എന്തിനെങ്കിലും പറ്റും കാരണം വീടിൻ്റെ അടുത്ത സ്കൂളെങ്കിലും കോളേജെങ്കിലും നമ്മൾ പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന സമയം വീട്ടിലുള്ള മൃഗങ്ങളെയും അതുപോലെത്തന്നെ കിട്ടുന്ന സമയം മൃഗങ്ങൾ സംരക്ഷണത്തിന് കുട്ടികളെല്ലാം നമ്മൾ പ്രാപ്തരാക്കണം ഇപ്പം ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ സ്കൂളുകളിൽനിന്നും കോളേജിൽ നിന്നൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെത്തന്നെ കൂടുതൽ തൊഴിൽ അപ്പം മറ്റുള്ളവരെ സഹായിക്കുവാനൊക്കെ കുട്ടികൾക്കൊരു മനസ്സുണ്ടാവുക അതില്ലാത്തത് കൊണ്ടാണ് പല കുട്ടികളിന്ന് കൊല്ലുന്നതും കൊലവിളിക്കൊക്കെ പോകുന്നത് കൂടെ പടിക്കുന്ന സഹപാഠികളെ കൊല്ലും കൊല്ലുന്നതുകൊണ്ടാണ് കാരണം അവർ നല്ല വഴിക്ക് നടക്കുന്നില്ല കാരണം അവർക്ക് ഇപ്പോഴാണേൽ അവർ ഫോണ് പിന്നെ തല്ലണം കൊല്ലണം കഞ്ചാവ് മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സിലൂടെയൊക്കെ അവർ അടിമപ്പെട്ട് പോകുന്നതിൻ്റെ മെയിൻ കാരണം അവർക്ക് മെയിനായിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് പോലുള്ള ഇത് അവർക്കില്ല അവരാണെങ്കിൽ ഒരു അവർ ചുമ്മാ ഇങ്ങനെത്തന്നെ എന്തൊക്കെ ചെയ്യുന്നു അത് മാത്രാണ് അവർക്കറിയുള്ളൂ പക്ഷെ നമ്മളാണെങ്കിൽ അവരാണെങ്കിൽ കൂടുതലായിട്ട് സമൂഹത്തിലേക്ക് ഇറക്കി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എന്താണ് തൊഴിലധിഷ്ഠിത കാര്യങ്ങളെക്കുറിച്ച് നമ്മളവർക്ക് ബോധവൽക്കരണം കൊടുക്കാനും അവരെ പഠിക്കാനും നമ്മൾ സഹായിക്കണം അതുപോലെത്തന്നെ കുട്ടികൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യം പിന്നെ പോക്കറ്റ് മണി ഇപ്പം നമ്മളെ അവർ മാതാപിതാക്കൾ അവർ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പോക്കറ്റ് മണി എടുത്ത് കൊടുക്കുന്നു പക്ഷെ നമ്മളങ്ങനെ കൊടുക്കരുത് കാരണം അവർക്ക് പോക്കറ്റ് മണി അവർ സ്വയം ഉണ്ടാക്കണം അപ്പം നമ്മൾ അതുപോലെത്തന്നെ ആദ്യം പറഞ്ഞപോലെത്തന്നെ കോഴി വളർത്തൽ അവർക്കൊരു പോക്കറ്റ് മണി കിട്ടും പിന്നെ മൃഗ സംരക്ഷണം അത്യാവശം മുയൽ അല്ല കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെ വളർത്തി തന്നെ അവർക്കൊരു പോക്കറ്റ് മണി കിട്ടും അതിന് പോക്കറ്റ് മണിക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് സ്വയം ഒരു പോക്കറ്റ് മണിക്ക് ആവശ്യമായിട്ടുള്ള ജോലി ഏത് കുട്ടികൾക്കും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണം സ്വന്തമായിട്ട് സ്വന്തം കാലിൽനിൽക്കാൻ അവർ കുഞ്ഞിലേ തന്നെ പഠിക്കണം പ്രാപ്തരാവണം എന്നെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ അവർക്ക് വളർന്ന് വരുവാനും നല്ലൊരിത് പിന്നെ മൃഗം മൃഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡോഗിനെ തന്നെ അവർക്ക് വളർത്തണമെങ്കിൽ അതിനെ എങ്ങനെ വളർത്തണം അതിനെങ്ങനെ സംരക്ഷിക്കണം ഭക്ഷണം കൊടുക്കണം എന്നിങ്ങനെ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അവർക്കൊരു നല്ല ഒരു മൃഗ സ്നേഹിയാവാനൊക്കെ കഴിയത്തുള്ളൂ അപ്പം അവർ കൂടുതലായിട്ട് ഈ പൊതു സമൂഹത്തിലോട്ട് ഇറങ്ങി ജോലി ചെയ്യുവാനല്ല അവർ കടക്കണം അപ്പം നമ്മളതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് അവർ ചെയ്യുന്നതിനെയെല്ലാം പിന്തുണയ്ക്കാനും നമ്മളും സഹായിക്കണം അപ്പം എന്നെങ്കിൽ മാത്രമേ അവർക്ക് സ്കൂളുകളിൽനിന്ന് പഠിപ്പിക്കാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാനുള്ള സമയമുണ്ട് എന്നെങ്കിൽ തന്നെ അവർ അതിനോടൊപ്പം തന്നെ അവർ ഈ ആശാരിപ്പണി പമ്പിങ് തുടങ്ങിയ അതുപോലെത്തന്നെ കോഴിവളർത്തൽ മൃഗസംരക്ഷണം അതെല്ലാം അവർ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അപ്പം ആ കൊണ്ടുപോവുക മാത്രമല്ല അവർക്ക് അതിൽ നിന്നൊരു സൈഡ് ബിസിനെസ് ആയിട്ട് അവർക്ക് അതിൽനിന്നൊരു പണം അത് ലഭിക്കണം അവർക്ക് പോക്കറ്റ് മണി അവർക്ക് വേണം അവരുടെ പോക്കറ്റ് മണി അവർ തന്നെ ഉണ്ടാക്കണമെന്നുള്ള ഒരിത് കൊണ്ട് നമ്മുടെ കേരളത്തിൽ കടന്നുവരുകയാണെങ്കിൽ കുട്ടികളെല്ലാം തന്നെ കഞ്ചാവും മയക്കുമരുന്നും അതിലോട്ടൊന്നും പോവത്തില്ല കാരണം നമ്മുടെ ഈ മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അവർക്ക് പൈസ കൊടുക്കുകയും ആവശ്യമുള്ള സാനങ്ങളൊക്കെ വേടിച്ച് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ വിചാരം എന്താണ് അവർക്കെല്ലാം കിട്ടുന്നുണ്ട് അവർക്ക് കഷ്ടപ്പാടറിയില്ല അപ്പം നിങ്ങൾക്ക് കുട്ടികളാണെങ്കിൽ കഷ്ടപ്പാട് അറിഞ്ഞു വേണം വളരാൻ അപ്പം അവർ കുട്ടികളാണെങ്കിൽ എന്തെല്ലാം കഷ്ട കുട്ടികൾ കഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവർക്ക് അതിൻറ്റേതായിട്ടുള്ള ഒരിത് കിട്ടത്തുളളൂ അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്കൊരു സൈഡ് ബിസിനസ്സ് എന്ന രീതിയിൽ കുറച്ച് പണി പഠിപ്പിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് തുന്നൽ അതുപോലെ കോഴിവളർത്തൽ മൃഗസംരക്ഷണം പബ്ലിങ് പമ്പിങ് അതുപോലെത്തന്നെ നമ്മുടെ കൃഷി കൃഷി ഉണ്ടല്ലോ വീട്ടിൽ ചീര ചീനി അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കൃഷി അതൊക്കെ അവർ തന്നെ നട്ട് അവരെക്കൊണ്ട് അതൊക്കെ വളർത്തുക നമ്മൾ നമ്മൾ നോക്കണം കൃഷി ചെയ്യാൻ തന്നെ ഇവരെ നമ്മൾ പ്രാപ്തരാക്കിയെടുക്കണം ഇന്നത്തെ കാലത്തുനിന്ന് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് ആൾക്കാർ കൃഷി ചെയ്യുന്നു ഇന്നും നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കൃഷി സാധ്യതകൾ കുറഞ്ഞിരിക്കുകയാണ് കാരണം കുട്ടികളെ ആരെയും കൃഷിയുടെ മേഖലയിലോട്ട് ഇറങ്ങുന്നില്ല കൃഷി ചെയ്യുന്നില്ല എന്തിന് കൃഷി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർക്കുള്ളത് അപ്പം നമ്മളാണെങ്കിൽ കൂടുതലായിട്ട് അവർക്ക് തൊഴിൽ സംരഭം അപ്പം അവരെയാണെങ്കിലൊരു കൃഷി ചെയ്യുവാണെ അതിൽനിന്ന് അവർക്ക് ലാഭം കണ്ടെത്തണം അതവരെങ്ങനെ കണ്ടെത്തുക അതിനെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് കൃഷിയെക്കുറിച്ചൊക്കെ ഒരു ഒരു ചിന്ത ഉണ്ടാവുന്നത് അപ്പം ആ കുട്ടികളെ നമ്മൾ ആശാരിപ്പണി പഠിപ്പിക്കണം പ്ലംമ്പിങ് പഠിപ്പിക്കണം അത്യാവശ്യ കാര്യങ്ങൾ നമ്മുടെ ഡ്രസ്സ് ഒക്കെ തുന്നാൻ പഠിപ്പിക്കണം കോഴി വളർത്തൽ അങ്ങനെയുള്ള മൃഗസംരക്ഷണം അതെല്ലാം അവരെ നമ്മൾ പഠിപ്പിക്കണം അത് സ്കൂളുകളിൽനിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽനിന്നും അവർക്ക് പഠിക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിക്കൊടുക്കണം